ആ കോഴിക്കോട് റെൻറ്റിന് ടു വീലർ റെൻറ്റിന് കൊടുക്കുന്ന കട അല്ലെ ആ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നത് ആണെ കോഴിക്കോട് ഓൾ കേരള ട്രിപ്പിന് വേണ്ടി ആ അപ്പം റെൻറ്റിന് എടുക്കാൻ വേണ്ടി ട്രെയിനിന് ആണ് വരുന്നത് അപ്പം വണ്ടി ഒന്നും ഇല്ല അപ്പം റെൻറ്റിന് എടുക്കാൻ വേണ്ടീറ്റ് വരുന്നത് ആണ് ബൈക്ക് ആ ഓ

ആ വൺ ഡേയ്ക്ക് എത്രയാണ് വരുന്നത് ബുള്ളറ്റിന് ഹിമാലയന് എത്ര ആണ് ഒരു ടെൻ ഡേയ്സ് ഓ വണ്ടിക്ക് അനുസരിച്ച് ആണ് അല്ലെ ആ സ്കൂട്ടിക്കോ

ആ ഓക്കെ ആ നമ്മള് പെട്രോളോ

നിങ്ങളാണോ അടിക്കുക അത് ഓക്കെ ഇപ്പം വണ്ടിക്ക് എന്തേലും കംപ്ലയിൻറ്റ് വന്നിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ റെഡി ആക്കോ അതോ ഞങ്ങളോ പെട്രോളിൻ്റ ഒന്ന് കൂടെ പറയാമോ പെട്രോളിൻ്റ ആ ഓക്കെ അപ്പം ഹിമാലയൻ എത്ര ആയിരുന്നു പറഞ്ഞത് ത്രീ തൗസൻഡാ അപ്പം ടെൻ ഡേയ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ

ആ ഹാ ഓക്കെ ടെൻ ഡേയ്സിൽ എന്നാൽ ഹിമാല വേറെ ഏതാ വണ്ടി ഉള്ളത് എല്ലാ വണ്ടി അവൈലബിൾ ആണോ ആ ഓക്കെ ഞാൻ എന്നാൽ കൺഫേം ചെയ്തിട്ട് അറിയിക്കും